ഹലോ ഞാൻ സ്ഥിരമായിട്ട് നിങ്ങൾടെന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കാറുള്ള ഒരാളാണ് നിങ്ങളുടെ സേവനത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇത് ഇപ്പോൾ വിളിക്കുന്നത് ഞാൻ ഓൺലൈൻലാണ് സ്ഥിരം ഡ്രെസ്സുകളെല്ലാം ഓഡറ് ചെയ്യുന്നത് പല സ്ഥലത്ത് നിന്നും ഡ്രസ്സ് ഓഡറ് ചെയ്യുന്നെങ്കിലും നിങ്ങൾ വളരെ പഞ്ച്വലാണ് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടായിരുന്നു പിന്നെ ഡ്രെസ്സെസ്സായാലും വളരെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ത്കൊണ്ടും നിങ്ങളുടെ സേവനം വളരെ നന്നായിട്ട് ഉണ്ട് ഒരു അങ്ങനെ ഒരു കംപ്ലൈയിൻസും എനിക്കിതുവരെ പറയാൻ ഞാൻ ഒത്തിരി നാളായിട്ട് ഞാൻ ഓർഡറ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അത് എനിക്കൊരു കംപ്ലൈയിൻറ്റ് പോലും ഇത്രയും നാളും പറയേണ്ടി വന്നിട്ടില്ല പ്രത്യേകിച്ച് ക്വാളിറ്റി ആയാലും പിന്നെ ഒരു ഓഡറ് ചെയ്ത കൃത്യസമയത്ത് കൊണ്ടെത്തിക്കുന്ന ഇതായാലും ഒക്കെ വളരെ നല്ല സേവനമാണ് മറ്റ് ഒരുപാട് സ്ഥാപനങ്ങളുടെ വച്ച് നോക്കുമ്പം എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ സ്ഥാപനം തന്നെയാണ് അതുപോലെ ഡെലിവറി ക്ക് വരുന്നവരായാലും അവരുടെ പെരുമാറ്റം വളരെ നല്ലതാണ് പിള്ളേരെല്ലാം ക്ഷമയോടെ അത് നമ്മൾക്കെല്ലാം പറഞ്ഞ് തരുകേം എല്ലാം ചെയ്യുന്നു അത് സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നന്നായിട്ട് തോന്നുന്നു അത് പറയാൻ വേണ്ടിട്ടായിരുന്നു ഓക്കെ താങ്ക് യൂ